വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തിൽ ഒരിക്കലും തന്നെ പല പരിഗണനകളും കാര്യങ്ങളും പിന്തള്ളപ്പെടുന്നൊന്നുല്ല പല രീതിലുള്ള കാര്യങ്ങളും നിലവിൽ പല ആളുകൾക്കും കിട്ടുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള പേരിൽ ഒരിക്കലും അവിടെ ഒരു പ്രശ്നം വരുന്നില്ല ഇനി വിദ്യഭ്യാസം ഇല്ലെങ്കിൽ പോലും അവർക്ക് ഏത് പ്രായത്തിലും എന്തു തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരവസരം ഈ ആധുനിക യുഗത്തിലുണ്ട് അതുകൊണ്ടു തന്നെ വിദ്യഭ്യാസമില്ല അതുകൊണ്ട് എനിക്ക് പരിഗണ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം അത് അച്ചട്ടായൊരു കാര്യമല്ല സത്യമായൊരു കാര്യമല്ല നമ്മുടെ ഗ്രാമീണ ജനതയിൽ പോലും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് ഒരിക്കലും സർക്കാരിൻ്റെ ഒരു നല്ല കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല അത് ജനങ്ങൾ മാറി ചിന്തി ചിന്തിച്ചതുകൊണ്ടും നമ്മുടെ നാട്ടില് സാങ്കേതിക വികസനങ്ങൾ കൊണ്ടുമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം പിന്നീട് നമ്മുടെ ഒരുപാട് നല്ല സംരംഭങ്ങൾ നമ്മുടെ നാട്ടില് വരുന്നുണ്ട് അതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ നമ്മുടെ ഗ്രാമത്തിൽ വരുന്നത്